എന്റെ കൈയിലുള്ള ഫോൺ ആദ്യത്തെ ഫോൺ എന്ന് പറയുമ്പം ചെറിയ കട്ട പെട്ടി പോലത്തെ ചെറിയ ഫോൺ ആയിരുന്നു ഇപ്പം എന്ന് പറഞ്ഞാൽ എന്റെ കൈയിൽ ഇപ്പൊളും അത് തന്നെയാണ് എല്ലാ എല്ലാര കൈയിലും വലിയ ഫോണുകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളുടെ അടുത്ത് പിന്നെ നമുക്ക് പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഫോണുകളൊന്നും വാങ്ങിയില്ല സാധാരണ ചെറിയ ഫോൺ ആണ് പിന്നെ ഇപ്പം ഞാൻ ഒരു ഫോൺ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അത് ഒരു ഇങ്ങനെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഫോൺ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഫോണിന് കൊടുത്തിട്ടുണ്ട് അത് ഒരാഴ്ച്ച കഴിഞ്ഞാൽ കിട്ടും എന്ന് തോന്നുന്നുണ്ട് എല്ലാര കൈയിലും ഇപ്പം അങ്ങനെ നല്ല ഫോണുകൾ അല്ലേ ഉള്ളത് അപ്പം നമുക്ക് അത് അതാണല്ലോ ചെറിയ ഫോൺ എല്ലാം എല്ലാര കയ്യിൽ നിന്നും മാറി ഇപ്പം വലിയ ഫോൺ മാത്രമേ എല്ലാവർക്കും ഉള്ളൂ പിന്നെ നല്ല വിലപിടിച്ച ഫോണുകളാണ് എല്ലാര കൈയിലും ഉള്ളത് ഇപ്പം ഞാനും അതുപോലെത്തന്നെ ഒരു ഫോണിന് അപേക്ഷിച്ചിട്ടുണ്ട് അത് ഫോൺ ഒരാഴ്ചക്കുള്ളിൽ വരുന്നതാണ് എല്ലാര കയ്യിലും ചെറിയ ഫോണുകളെല്ലാം ഇപ്പം കാണാൻ തന്നെയില്ല എല്ലാം പോയി തുടങ്ങി എല്ലാം വലിയ ഫോൺ മാത്രമേ എല്ലാവർക്കും ഉള്ളൂ